അലോ ഇത് പുൽപ്പറ്റ അക്ഷയ അല്ലേ ആ ഞാൻ ജാസ്മിയാണ് എനിക്കെൻ്റെ പെൻഷൻൻ്റെ കാര്യങ്ങളൊക്കെയൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് എന്തൊക്കെ വേണം ആ അത് എല്ലാതും ഉണ്ട് എൻ്റെ അടുത്ത് പിന്നെ തൊഴിലുറപ്പിൻ്റെ കടലാസുംകൂടി ശരിയാക്കേണ്ടിയിരുന്നു ആ അ പറമ്പു പണി എടുപ്പിയ്ക്കാൻ ആ അ

ആ ആ അ ആ ആ അ ആ ആ അതിന് സംഖ്യ കുറച്ച് ആവുമോ ആ അ അ അ എൻ്റെ പെൻഷൻ പൈസയൊക്കെ എത്ര ഉണ്ടാവും ആ ആ ആ ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കിട്ടിയിട്ടൊന്നും ഇല്ല